ഗ്രാമീണ കൃഷികളിൽ തൊഴിലാളികളെ നമുക്ക് ലഭിക്കാൻ അവരെ നിർത്താനും നമുക്ക് ധാരാളം വെല്ലുവിളികളുണ്ട് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും മനസ്സ് എല്ലാവരുടെയും മനസ്സിലേക്ക് അതൊരു ബാക്ക്വേഡ് ഒരു പിന്നോക്ക അവസ്ഥയായിട്ടാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അതിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കിട്ടുകായെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്താ വേണ്ടി വരും അവർക്ക് അവരുടെ മറ്റ് ജോലികളെക്കാട്ടിലും കൂടുതൽ അതിനകം ഇരട്ടി കൂലികളും ഒക്കെ കൊടുത്താൽ മാത്രമേ എന്താ ഉള്ളു നമുക്ക് ച അങ്ങനത്തെ കർഷകരെ ലഭിക്കുകയുള്ളൂ പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇപ്പം അധികം കൃഷികളും ചെയ്യുന്നത് മെഷീനുകളും അതുപോലെ ഫാക്ടറികളിലുള്ള റോബോട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ കൃഷി കൃഷി ചെയ്യുക ഇപ്പോൾ അധികം കൃഷികാർക്ക് ആ നമുക്ക് ആവശ്യമായി വരുന്നില്ല പിന്നെ ഇവിടെ നിലനിർത്തണമെങ്കിൽ നമുക്ക് മെയിന ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഒന്ന് ആദ്യം അവർക്ക് കുറച്ച് സമയം ജോലിയും അവർക്ക് താങ്ങാൻ പറ്റുന്ന അവരുടെ ബോഡിയോട് താങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ജോലികൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് അതിൻറ്റേതായ ശമ്പളം കൂലി കൃത്യമായി കൊടുക്കുകയും ചെയ്യുക പിന്നെ ഈ ഒരു കാലത്ത് ഒരു കർഷകന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തുക എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഡെയിലി ഈ അഞ്ച് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറ് ജോലി ചെയ്താലും ഏകദേശം അദ്ദേഹത്തിന് ഏകദേശം ഒരു ആയിരത്തിന് ചൂവടെയുള്ള എന്നാൽ പറ്റ കുറയാതെ ഒരായിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനത്തെ പൈസ ഒന്നെങ്കിൽ ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരം എത്തണ്ട അതിൻ്റെ കീഴിലുള്ള ഒരു സംഖ്യയാണ് ഇപ്പോഴുള്ള ഒരു കർഷകൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു വരുമാനം നൽകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കർഷകരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിർത്താനും സാധിക്കും